കണ്ണൂർ ജില്ല ജില്ലയിൽ എന്ന് പറയുമ്പോൾ ആഘോഷിക്കുന്ന പ്രധാന സാംസ്കാരിക ഉത്സവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാൻ പറ്റിയത് തെയ്യാണ് തെയ്യം കണ്ണൂർ ജില്ലക്കാരുടെ ഒരു വികാരം തന്നെയാണ് അതിപ്പോൾ ഈ ഒക്ടോബർ മാസം ആകുമ്പോൾ തുടങ്ങും ഒക്ടോബർ മാസത്തിലാണ് അത് ആരംഭിക്കുക തുലാമാസം അങ്ങനെയാണ് പറയാ തുലാം തുലാം തുടങ്ങി കഴിഞ്ഞാൽ ഉത്സവം ആരംഭിച്ചുന്നാണ് അപ്പം ഇവിടേയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്സവങ്ങൾ തെയ്യങ്ങൾ കെട്ടി ആടുക തുടങ്ങിട്ട്ണ്ട് കണ്ണൂർ ജില്ലേനെ ഒരു പ്രധാന പ്രത്യേകത അതുതന്നെയാണ് കെട്ടി ആടീട്ടുള്ള ദൈവം മറ്റ് ജില്ലകളിൽ അങ്ങനെ കൂടുതൽ ഉണ്ടാവാം കൂടുതലും എന്നാലും കണ്ണൂർ ജില്ലക്കാർക്കാണ് ഈ തെയ്യം കെട്ടി ആടുന്ന ദൈവങ്ങളെ കൂടുതൽ മുത്തപ്പൻ കണ്ണൂർ ജില്ലേൻ്റെ ഒരു ഏറ്റവും വലിയ എന്താ പറയാ അഹങ്കാരമെന്ന് പറയാനൊരു മുത്തപ്പൻ മുത്തപ്പനെ അറിയാത്ത മുത്തപ്പനെ കാണാൻ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരാറണ്ട് കണ്ണൂർ മുത്തപ്പൻ മടപ്പുരയിലേക്ക് അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ സമയത്തെ ഓരോ ദൈവം തെയ്യം വേഷം ശിവൻ ശിവൻ്റെ പാർവതിയുടെ ഒക്കെ എന്താ പറയാ വേഷം അതുപോലെ കണ്ഠാകർണൻ അങ്കക്കാരൻ പപ്പൂരൻ അങ്ങനെ ഓരോ തരം പല തരം പേരുകളാണ് അവർക്കെല്ലാമായിട്ട് നമുക്ക് ചില പേരുകൾ നമുക്ക് തന്നെ അറിയാൻ പറ്റാത്തെ തീ ചാമുണ്ഡി ഗുളികൻ അങ്ങനെ ഒരുപാട് മുച്ചിലോട്ട് ഭഗവതി ഇളയെടത്ത് ഭഗവതി അങ്ങനെ ഓരോരോ പേരുകളിൽ രക്തേശ്വരി പറഞ്ഞാ തീരില്ല അതിലും ഉപരി ഒരുപാട് തെയ്യത്തിൻ്റെ വേഷങ്ങൾ തന്നെ ഉണ്ട് ആ പറയാ മറ്റ് നാടുകളിലക്കെ ദീപാവലി ഹോളി ഉഗാദി അങ്ങനത്തെ ഒരു സംക്രാന്തി അങ്ങനെ ക നാടൻ കലാരൂപം അതായത് ഈ കൂടിയാട്ടം കുച്ചിപ്പുടി അങ്ങനത്തേയൊക്കെ കലാരൂപങ്ങൾ അതുപോലെ കണ്ണൂർ നാടിൻ്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത് എന്നു വെച്ചാൽ തെയ്യം തെയ്യം തന്നെയാണ് തെയ്യക്കാലായി കഴിഞ്ഞാൽ കണ്ണൂര്കാര് അവർ ഒരു എന്താ പറയാ ഒരു വലിയൊരു ആഹ്ളാദത്തിൻ്റെ സമയം തന്നെ പറയാം ആ ഒരു സമയം നമ്മുടെ എന്താ പറയാ മെയിൻ എക്സാമിൻ്റെ ഒക്കെ സമയം ആയിരിക്കും ഫെബ്രുവരി മാർച്ച് പക്ഷേ തെയ്യം കഴിഞ്ഞിട്ടേ ആ എക്സാമുപോലും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളൂ അത്രക്കും തെയ്യക്കാലഘട്ടം എന്ന് പറയുമ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും എനിക്ക് മാത്രായിട്ടല്ല എല്ലാവർക്കും കണ്ണൂർ ജില്ലയിലെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലക്കാർക്കക്കെ കണ്ണൂർ ജില്ലയിലെ തെയ്യക്കാരോട് ഒര് അസൂയ പോലെയാണ് അവർ പറയാ അവരെയൊക്കെ നമ്മളിപ്പോൾ തെയ്യത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ എന്ത് അവർ തിരക്കാണെങ്കിലും അതൊക്കെ ഉപക്ഷിച്ചിട്ട് അവർ തെയ്യം കാണാനൊക്കെ വരാറു ണ്ട്